ഞാൻ ഫോണിൽ പലതരം ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഗൂഗിൾ മീറ്റ് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ക്ലാസ്സുകൾ കൂടാൻ വേണ്ടിയാണ് പിന്നെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒക്കെ ആണ് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നത് അതിനകത്ത് ഓഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും നല്ല ഒരു ആപ്പ് ആണ് ഒത്തിരി പേർക്ക് ഒരേ സമയം തന്നെ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സൊക്കെ കൂടാൻ പറ്റിയ ഭയങ്കര സൗകര്യപ്രദായിട്ടുള്ള ആപ്പാണ് ഗൂഗിൾ മീറ്റ് ഇനി വേറെ എന്താണ് മറ്റൊരു ആപ്പാണ് വാട്സപ്പ് വാട്സപ്പ് വളരെയധികം ഉപകാരപ്രദായിട്ടുള്ള ഒരു ആപ്പാണ് വാട്സാപ്പിന് അകത്ത് പലതരം ഫീച്ചേഴ്സ് ഉണ്ട് വാട്സപ്പിൽ ഫോട്ടോസ് വീഡിയോസ് മുതലായ കാര്യങ്ങൾ വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റും ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട് വോയിസും മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ചിത്രങ്ങൾ പങ്കു വയ്ക്കാൻ പറ്റുന്നുണ്ട് വീഡിയോ കോളും ഓഡിയോ കോളും ചെയ്യാൻ പറ്റുന്നുണ്ട് വാട്സപ്പിലൂടെ അങ്ങനെ അങ്ങനെ സുഹൃത്തുക്കൾക്ക് അത് ഒരു സമയത്ത് തന്നെ കുറേ പേർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പലതരം ഉപകാരങ്ങൾ വാട്സാപ്പിലോട്ട് ലഭ്യമാകുന്നുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിന് അകത്ത് ഫേസ്ബുക്കിലും ഇതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സ്റ്റോറി കൾ ഇടാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സ് മായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വീഡിയോ കോള് ഓഡിയോ കോള് മുതലായ സൗകര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് നൽകുന്നുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊ രു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമും മറ്റ് സോഷ്യൽ സോഷ്യൽ മീഡിയ ആയത്കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലും വളരെയധികം ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മെസ്സേജുകൾ അയക്കാൻ പറ്റുന്നുണ്ട് വീഡിയോ വീഡിയോസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനും അതിന് ലൈക്കുകളൊക്കെ ലഭ്യമാകുന്നുണ്ട് പിന്നെ കുറേ നേരം പോക്കിന് വേണ്ടി കുറേ റേ നേരം അതിനകത്ത് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കൂടാതെ കൂടാതെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചു വീഡിയോ കോള് ഓഡിയോ കോള് ഉള്ള മുതലായവ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് വോക്കിൻ സ്കാനറ് സ്കാനറ് അതായത് പി ഡി എഫ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് വോക്കിൻ സ്കാനർ അതുപയോഗിച്ച് പി ഡി എഫ് ആക്കാനും സ്കാൻ ചെയ്യാനും ഫോട്ടോസ് സ്കാൻ ചെയ്തു ഉപയോഗിക്കാനുമൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മറ്റൊരു ആപ്പാണ് ഇൻഷോട്ട് വീഡിയോസ് കട്ടുചെയ്യാൻ ഓഡിയോസ് കട്ട് ചെയ്യാൻ മുതലായ കാര്യങ്ങൾക്കാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് പിന്നെ ക്യാമറ ക്യാമറ ഫോട്ടോസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഗ്യാലറി ഗ്യാലറിക്ക് അകത്ത് കുറേ ഫോട്ടോസ് കാര്യങ്ങളും ഒക്കെ സ്റ്റോറ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ആപ്പാണ് ഗൂഗിള് ഗൂഗിളിന് അകത്ത് പല തരം വിരങ്ങൾ കേൾക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഗൂഗിള് യൂട്യൂബ് യൂട്യൂബ് ഇത് തന്നെ പല കാര്യങ്ങളും അറിയാൻ വേണ്ടിയും പിന്നെ വീഡിയോസ് കാണാൻ വേണ്ടിയും മുതലായ കാര്യങ്ങൾകൊക്കെ ആയിട്ട് യൂട്യൂബ് ഉപയോഗിക്കും ഇത്രയും ആപ്പുകൾ യൂട്യൂബ് ഗൂഗിള് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് മെസ്സഞ്ചറ് മുതലായ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ മുതലായ ആപ്പുകളാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്